നമുക്ക് ഈ ബൈക്ക്ന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് എനിക്ക് ഈ ബൈക്കൊന്നും ഇല്ല നമുക്ക് ഈ റോഡിൽ കൂടെയൊക്കെ പോകുന്ന ആൾക്കാരെ ബൈക്കും ചേട്ടന്മാർ ഓടിക്കുന്നതിലും ചേച്ചിമാർ ഓടിക്കുന്നത് ആണെങ്കിലും എനിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു ചെക്കന്മാർ ആ ഓടിക്കുന്നത് ആണെങ്കിലും സ്വന്തമായിട്ട് ഒരു വണ്ടി എടുക്കണം ഒരു ബൈക്കെട്ക്കണംന്ന്ള്ള എൻ്റെ ഡ്രീം ബൈക്കായിട്ട്ള്ള ഹിമാലയ എട്ക്കണന്നൊക്ക്ള്ള വല്ലാത്തൊരാഗ്രഹായിര്ന്നു അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെട്ത്ത് ഹിമാലയം ബൈക്കെക്ക്ണ്ടപ്പം ഞാൻ എടക്കെക്ക പോവുമ്പോ എടക്കെട്ത്ത് ഓടിക്കും അങ്ങൻത്തെ കാര്യങ്ങളൊക്ക്ണ്ടാര്ന്നു അത് എടക്ക് വല്ലപ്പോഴും കിട്ടിയാ കിട്ടി അങ്ങന ഫ്രണ്ട്സിൻ്റെ വണ്ടിയെക്കെട്ത്ത് ഓടിക്കും പിന്നെ എനിക്കീ ബൈക്ക്ന്ന് വെച്ചാ എൻ്റെ ജീവനാണ് എനിക്ക് വമ്പ ഇഷ്ടാണ് ഞാൻ ഒര് രെണ്ട് മൂന്ന് കൊല്ലം കയ്ഞ്ഞപ്പോ ഞാ സ്വന്തായിട്ട് പണിയെട്ത്ത് പൈസയ്ണ്ടാക്കി ഒരു ബൈക്കെട്ത്തു ബൈക്കെട്ത്തിറ്റ് എല്ലാ പഷെ ആദ്യായിട്ട് ഞാ ഷാട്ടെയ്യ്മ്പ കേറി ഇര്ന്ന് ഷാട്ടെയ്തിട്ട് താക്കോലെട്ത്ത് ഷോറൂമ്ന്നെറക്കുമ്പ ഉള്ളൊരു സന്തോഷ ഒണ്ടല്ലോ അത് വേറെ എവ്ടെ ആരോടും പറഞ്ഞ് മനസ്സിലാക്കാ പറ്റ്ലാ അത്രേം സന്തോഷായിരുന്നു പിന്നെ ഞാ പിന്നെ സ്വന്തായിട്ടൊര് ബൈക്കെട്ത്തു പിന്നെ ഞാൻ കൊറേ ട്രാവല്ഗി ചെയ്തിട്ട്ണ്ട് ഞാൻ കൊറേ ഗോവ കൊച്ചി അങ്ങനെയെക്ക പൊറത്ത് ബൈക്കും കൊണ്ട് പോയിട്ട്ണ്ടൊറ്റക്ക് പോയിട്ട്ണ്ട് പഷെ നമക്ക് ഒറ്റക്കാ പോവ്ന്നേന്ന്ള്ളൊരു വെഷ്മം തോന്നൂല്ല ബൈക്ക് പോവ്മ്പൊ നമക്കിങ്ങനെ നാട്ട്ക്കൂടെ പോവുമ്പാൾക്കാര കാണാ സംസാരിക്കാം കൊറേ ആൾക്കാരെ സ്വഭാവ അറിയാൻ പറ്റും പിന്ന അതേപോലെ ബൈക്ക് പോവ്മ്പൊ കൊറേ കാര്യങ്ങള് ശ്രദ്ധിക്കാൻ പഠിക്കാൻ പറ്റും എങ്ങനെയെക്ക വണ്ടി ഓടിക്കണം എങ്ങനെയെക്കെയാണ് വണ്ടീൻ്റെ കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റും അങ്ങനെ കൊറേ കാര്യ ഇണ്ട് ബൈക്ക് ഷാട്ടാകുമ്പം തന്നൊര് ഫീലിംഗാണ് നമക്ക്